വൈദുതിയുടെ ചില അപകടങ്ങളെ കുറിച്ച് ഞാൻ വൽ നല്ല ബോധവാനാണ് എങ്കിൽ പോലും ചില സമയങ്ങളിൽ എനിക്കും അബദ്ധം പറ്റാറുണ്ട് ഇപ്പോൾ എനിക്കെൻ്റെ വീട്ടിലുള്ള ഫ്യൂസ് പോയാൽ തന്നെ നമ്മുടെ മെയിൻ സ്വിച്ച് ഓഫാക്കിയിട്ട് വേണം നമ്മൾ ഫ്യൂജ് ഫ്യൂസ് ഒക്കെ കെട്ടാൻ വേണ്ടിയിട്ട് എന്നാൽ ചില സമയങ്ങൾ നമ്മൾ ഞാൻ ആദ്യമൊക്കെ പിന്നെ ഫ്യൂസ് ഊരുമ്പോൾ ഇടക്ക് മെയിൻ സ്വിച്ച് ഓഫാക്കാതെ ഊരാൻ ശ്രമിക്കുമായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു കേട്ട് പിന്നീട് എനിക്കിപ്പോൾ ഭയങ്കര പേടിയാണ് ഫ്യൂസൊക്കെ ഊരുമ്പോൾ മെയിൻ സ്വിച്ച് ഓഫാക്കിയിട്ടു ഒക്കെ ഓഫാക്കിയിട്ടേ ഞാൻ ഊരാറുള്ളു അതുപോലെ തന്നെ നമ്മൾ പിന്നെ ചാർജ് കുത്തിയിട്ട് ഫോൺ ഊരിയെടുക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആക്കാതെയാണ് ഞാൻ നമ്മളിടയ്ക്ക് ഫോണൊക്കെ ഊരിയിട്ട് ചാർജ് കുത്തിയിട്ട് പോകാറ് എന്നാൽ ഈ ചാർജ് ചാർജറിൻ്റെ ഫോ ഈ ചാർജർ കുത്തിയിട്ട് സ്വിച്ച് ഓഫാക്കാതെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചാർജർ എടുത്ത് വായിലിടുകയോ അല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് കളിക്കുകയൊക്കെ ചെയ്താൽ അവർക്ക് ഷോ പെട്ടെന്ന് തന്നെ ഷോക്ക് ഏൽക്കും ചെറിയ കുട്ടികളാകുമ്പോൾ പെട് പ്രത്യേകിച്ചും ഷോക്ക് ഏൽക്കും അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഷോ ഇപ്പോൾ ഈ വയറിങ്ങിലായിക്കോട്ടെ നമ്മൾ വോൾടേജ് കുറഞ്ഞ സമയങ്ങളിൽ നമ്മൾ പിന്നെ എന്തെങ്കിലും ഒരു ഉപകരണം ഇലക്ട്രോണിക്സ് ഈ മിക്സി ഗ്രൈൻഡർ എന്ന് എന്തെങ്കിലും ഇങ്ങനെ മോട്ടറോ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ ചില സമയങ്ങളിൽ മിക്സിയൊക്കെ പൊട്ടി തെറിക്കും അത് മിക്സി പൊട്ടി തെറിക്കുന്നത് എൻ്റെയടുത്തുനിന്ന് അതും പറ്റിയിട്ടുണ്ട് മിക്സിയൊക്കെ വോൾട്ടേജ് കുറഞ്ഞ സമയങ്ങളിൽ ഇ ഇട്ടസമയത്ത് പൊട്ടിത്തെറിച്ച് പിന്നെ ഇടി മിന്നലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വൈദ്യുതി കൊണ്ട് അധികം കളിക്കരുത് പിന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും ചാർജിന് കുത്തകയൊന്നും ചെയ്യാൻ പാടില്ല അതുപോലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉപയോഗിച്ചൊന്നും വർക്ക് ചെയ്യിപ്പിക്കാൻ പാടില്ല അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ പിന്നെ എർത്തിലേക്ക് വൈദ്യുതി പോകുന്ന വൈദ്യുതി നമ്മുടെ വീടുകളിൽ തന്നെ എർത്തിലേക്കൊക്കെ ഒരുപാട് വൈദ്യുതിപോകും അതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് പെട്ടെന്നുതന്നെ ഷോക്ക് ഏൽക്കും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വൈദ്യുതി കൊണ്ട് കളി വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടഒരുപാട് കാര്യങ്ങളുണ്ട്